നമ്മുടെ സ്കൂളിൽ ചിത്രരചന അഭ്യസിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേകം ആയിട്ടുള്ള ഒരു സാർ ഉണ്ടായിരുന്നു ആ മാഷ് തന്നെയാണ് എല്ലാവരെയും ചിത്രരചന പഠിപ്പിച്ച് പഠിപ്പിച്ചത് അഞ്ചാം ക്ലാസ് മുതൽ ഒമ്പതാം ക്ലാസ് വരെ എല്ലാവർക്കും ചിത്രരചന പഠിക്കേണ്ടത് നിർബന്ധമായിരുന്നു ആഴ്ചയിൽ രണ്ട് ദിവസങ്ങളിൽ ആയിട്ടാണ് ഈ ചിത്രരചനയുടെ ക്ലാസ് നമുക്ക് സ്കൂൾ സംഘടിപ്പിച്ചിരുന്നത് വളരെയധികം നല്ലൊരു നല്ലൊരു ക്ലാസായിരുന്നു സാർ നമുക്ക് പങ്കുവെച്ചിട്ടുള്ളത് എങ്ങനെ ചെറിയ ചെറിയ ചിത്രങ്ങളിൽ തുടങ്ങി പിന്നെ വലിയ വലിയ ചിത്രങ്ങൾ എങ്ങനെ വരയ്ക്കാം അതിൻ്റെ മാതൃകങ്ങളും രൂപങ്ങളും വേറെ ഒരുപാട് ബുക്കുകളിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സാർ പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെ വരയ്ക്കാം എങ്ങനെ അത് നമുക്ക് അത് കുറച്ചും കൂടി ഭംഗിയാക്കാം ഷെയ്ഡിങ്ങ് എങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ അത് എങ്ങനെ ഒരു ഒരു ഒരു നമ്പേഴ്സിൽ നിന്നോ അല്ലെങ്കിൽ ഒരു കൂട്ടം അക്ഷരത്തിൽ നിന്നൊക്കെ നമ്മളൊരുപാട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് ഡോട്ട് ഡോട്ടുകളാക്കിയിട്ട് ഒക്കെ മാഷ് നമുക്ക് ഓരോ സാധനങ്ങൾ തരും പിന്നെ അത് വരച്ചു കംപ്ലീറ്റ് ആക്കിയ സമയത്ത് ഒരു ചിത്രം പൂർണമായിട്ട് നമുക്ക് കിട്ടും അങ്ങനെ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമുക്ക് സർ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് സാറ് അന്ന് നല്ല നല്ല പ്രോത്സാഹനം സാറ് നൽകാറുണ്ട് ഒരു ചിത്രം വരച്ച് കഴിഞ്ഞാൽ തന്നെ അത് മോശമാണെങ്കിൽ സാർ അത് എങ്ങനെ മോടി പിടിപ്പിക്കാം കുറച്ചുകൂടി നല്ലതാക്കാം സാറ് നമ്മുടെ അടുത്തു നിന്ന് തന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുകയും ചെയ്യും അതുകൂടാതെ എങ്ങനെ ഒരു ചിത്രം വരച്ചു കഴിഞ്ഞു അപ്പം അതിനെ നല്ല ചിത്രമാണ് സർ നല്ല നല്ല അഭിപ്രായം ക്ലാസ്സിൽ മൊത്തമായിട്ട് തന്നെ അത് കാണിച്ചു കൊടുക്കാൻ നമുക്ക് നല്ല നല്ല പ്രോത്സാഹനം തരാനും സാറ് ശ്രമിക്കാറുണ്ട് ശ്രമിച്ചിട്ടുണ്ട് ഒരുപാട് പ്രോത്സാഹനം തരാറുണ്ട് അതുകൂടാത തന്നെ എല്ലാവരെയും ചിത്രരചന മത്സരത്തിൽ പങ്കെടുപ്പിക്കുകയും മത്സരത്തിൽ പോകുന്ന സമയത്ത് തന്നെ സാർ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നിർദ്ദേശിക്കും എങ്ങനെയാ ചിത്രങ്ങൾ മറ്റുള്ള കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമാക്കാം എങ്ങനെ വൃത്തിയിൽ വരയ്ക്കാം പെൻസിൽ എങ്ങനെ പിടിക്കാം തൊട്ട് തൊട്ടുമുതൽ ഒരു കാര്യം എങ്ങനെ കമ്പ്ലീറ്റ് ചെയ്യാം വരച്ച് എങ്ങനെ കമ്പ്ലീറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ വരെ സാറ് നമുക്ക് പറഞ്ഞു തരാറുണ്ട് വളരെയധികം ആയിട്ടുള്ള നല്ലൊരു ക്ലാസ് തന്നെയാണ് സാർ നമുക്ക് എടുത്തു തരാ എടുത്തു തന്നിട്ടുള്ളത് അതുകൊണ്ട് ചിത്രരചനയിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല